പ്രപഞ്ചത്തെക്കുറിച്ച് ഇപ്പോഴും പരിഹാരം പരിഹരിക്കപ്പെടാത്ത ഗ കൂടുതൽ ഗവേഷണം അങ്ങനത്തൊരു കാര്യം ചോദിച്ചാൽ ആദ്യം എല്ലാവരേം മനസ്സിലേക്ക് വരുന്നത് ബ്ലാക്ക് ഹോളും സ്റ്റീഫൻ ഹോക്കിംഗ്സുവ കാരണം ബ്ലാക്ക് ഹോളെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എന്തൊരു ഒരു എൻറ്റിറ്റി ആ ഒരു എൻറ്റിറ്റിരെ അടുത്തേക്ക് കൂടെ പോയാൽ നമ്മളെ ആ ബ്ലാക്ക് ഹോൾ അബ്സോർബ് ചെയ്യും ബ്ലാക്ക് മീൻസ് എന്തേലും അബ്സോർബ് ചെയ്യുന്ന സാധനം അപ്പം ഈ ബ്ലാക്ക് ഹോളിലേക്ക് അബ്സോർബിയപെടും എന്നാണ് പറയുന്നത് പക്ഷേ ഇതിനെ പറ്റിട്ടൊരു കറക്റ്റ് എവിടെൻസൊ ഒരു പ്രൂഫോ ഒന്നൂല്ല ബ്ലാക്ക് ഹോളെന്നൊക്കെ പറയുമ്പോൾ നമുക്കാദ്യം ഓർമ്മ വരുന്നൊരു സിനിമാന്ന് പറഞ്ഞാൽ ഇൻറ്റർസ്റ്റെല്ലറാവും ഇൻറ്റർസ്റ്റെല്ലാറ് കാണാത്തതായിട്ട് ആരുമുണ്ടാവൂല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു സയൻസ് ബേസ്ഡ് ഫിക്ഷനെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഫിക്ഷൻസ് ആവുമ്പോൾ ക്രിസ്റ്റഫർ നോളൻ്റെ പടങ്ങളാവും അതിനകത്ത് ഏറ്റോം ഫ് ഫാൻ ബേസൊള്ളൊരു പടമാണ് ഇൻറ്റർസ്റ്റെല്ലാർ അപ്പോൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത ഒരു പ്ര ക പ്രപഞ്ചത്തിലെ ഒരു കാര്യമെന്നു പറയുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ള ബ്ലാക്ക് ഹോളിനെ പറ്റീട്ടാണ് എന്ത് ആർക്കും ഇതുവരെ എന്താണ് ഒരു ബ്ലാക്ക് ഹോളിനെ പറ്റി അതിൻ്റെ സൈസ് എത്രത്തോളം ഉണ്ട് ലൈക്ക് അന്തകം ഒരു വേറെ ഒരു ഗ്യാലക്സിടെ അത്രേം തന്നെ സൈസ് ഉണ്ടെന്ന് പറയണ് പറയപ്പെടുന്നു പക്ഷേ അതിനെ പറ്റീട്ട് ഇപ്പോഴും ഒരു കറക്റ്റായിട്ടുള്ളൊരു അറിവില്ല അത് കാരണം എന്താ അങ്ങനത്തൊരു ഇഷ്യൂ ചോദിച്ചാൽ ആദ്യം ഞാൻ ബ്ലാക്ക് ഹോളിനെ പറ്റീട്ട് പറയും പിന്നൊരു ഇഷ്യൂന്ന് പിന്നെ പരിഹരിക്കപ്പെടാത്തൊരു കാര്യം ചോദിച്ചാൽ ബാക്കിയുള്ള പ്ലാനെറ്റ്സിലേക്ക് ഇപ്പോൾ എപ്പോഴും കൂടുതൽ ചൊവ്വ അല്ലേ മാഴ്സിലേക്കെക്കെയാണ് കൂടുതൽ മിഷൻസിനുവേണ്ടി പോവുന്നത് ബാക്കിയുള്ള പ്ലാൻസിലേക്കൊന്നും പോകുന്നില്ല അല്ലേ അവിടുത്തെ പ്രസൻസും ലൈഫൊന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ലന്നല്ല അധികം സ്റ്റഡീസും കാര്യങ്ങളും നടത്തീട്ടില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഇടക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നാറുണ്ട് എന്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ നോക്കാത്തത് പിന്നെ പണ്ടത്തെ ഈ മീറ്റോസ്ൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനായിരുന്നു അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഇതൊക്കെയാണ് പ്രപഞ്ചത്തിലെ അണ്സോള്വ്ട് ഇഷ്യൂസെന്ന് തോന്നാറുള്ളത്